പല തരത്തിലുള്ള പാചകം ചെയ്യാറുണ്ട് അതിൽ കൂടുതൽ താൽപ്പര്യം വെജിറ്റേറിയൻ അതായത് പച്ചക്കറികളിൽ താൽപ്പര്യം പാചകം ചെയ്യാനാണ് അതിൽ എല്ലാ തരത്തിലുള്ള അതായത് പച്ചക്കറിയിൽ നിന്ന് വരുന്നതല്ലാത്ത തൈര് പരിപ്പ് കറി തൈര് കറി പരിപ്പ് കറി പുളിശ്ശേരി അങ്ങനെ എല്ലാ തരത്തിലെ എല്ലാത്തിനും അതിൻറ്റേതായ കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ ചെയ്യാനാണ് താൽപര്യപ്പെടുന്നത് പിന്നെ പാചകം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ബിരിയാണി അതൊക്കെ നോൺ വെജ് ചെയ്യാനാണ് നോൺവെജ്ലന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുണ്ട് മീൻ കറി ഫിഷ് കറിയിൽ തന്നെ ഓരോ തരത്തിലുള്ള ടൈപ്പിലുള്ള ഫിഷും കറി വെക്കാൻ നല്ല താൽപ്പര്യം അതിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതൊക്കെ റെ റെഡി ആയിട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറിയിൽ വരുന്ന എല്ലാത്തരം അതായത് ഒരു കേരളീയ സാധാരണ മലയാളികൾക്ക് നല്ല ഫുഡും പുളിശ്ശേരി സാമ്പാർ എന്നിവ ആക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഇൻട്രെസ്റ്റോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് അതെല്ലാം ആക്കാനും ബുദ്ധിമുട്ടില്ല സാമ്പാറായാലും പുളിശ്ശേരിയായാലും അതിന് എത്രയും വേഗം ആക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിൽ തക്കാളിക്കറി വെക്കാനാണെങ്കിൽ തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെ വേറെ സിമ്പിളായിട്ട് ആക്കാൻ പറ്റിയ ആക്കാൻ പറ്റിയ കറികളാണ് പരിപ്പ്കറി തക്കാളിക്കാറി ചെറുപയർ പ്രോട്ടീൻ അടങ്ങിയ മുളപ്പിച്ച ധാന്യങ്ങളും മുളപ്പിച്ചിട്ട് തുവര പയർ കടല തുടങ്ങിയ ധാന്യങ്ങളൊന്നും മുളപ്പിച്ച് കറി വെക്കാൻ അതും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് അത് അതിന് എളുപ്പമാണെന്ന് അതിലെ മുളപ്പിച്ചെങ്കിൽ അതിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുവോം ചെയ്യും നമ്മുടെ ശരീരത്തിൽ അത് നമ്മുടെ ഹെൽത്തിനെ എല്ലാത്തരത്തിലും നല്ലതാണ് നല്ലത് ഇങ്ങനെ വറവകളായിട്ട് ആക്കുന്നതാണ് ഇതിൽ എല്ലാത്തരത്തിലും വറവകൾ അത് കേബേജ് വഴുതന ബീൻസ് ക്യാരറ്റ് അങ്ങനെ എല്ലാത്തരത്തിലുള്ള വറവകളും എളുപ്പത്തിലാക്കാൻ കഴിയുന്നതാണ് അതിൽ പച്ചമുളകും വെളിച്ചണ്ണെ മാത്രം ആവിയിൽ വെച്ചിട്ട് വറവകളാക്കും എന്നിട്ട് വെള്ളം എന്ന് ഓഴിക്കാത്തെ വറവാക്കാറുണ്ട് ഇപ്പം ബീറ്റ്റൂട്ട് ക്യാരറ്റ് അതിലെല്ലാം ബീൻസ് അത്തരത്തിൽ വറവക്കെ ആക്കുമ്പോൾ അതിൽ ആവിയിൽ വേവിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മാത്രമാക്കുന്ന തരത്തിലും ആക്കുന്നുണ്ട് വറവകളാക്കാം പിന്നെ അത് ആ കറികളങ്ങ് തേങ്ങ അരക്കാത്ത കറികൾ അതായത് തേങ്ങ അരക്കാണ്ട് സാർ തക്കാളി പരിപ്പ് എല്ലാം അരക്കാത്ത കറികൾ അതായത് മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ ഗ്രീൻ ചില്ലി അതെല്ലാം ചേർത്തിട്ട് അരക്കാത്ത കറികളക്കെ എന്ന് വെച്ചാൽ ശരീരത്തിന് നല്ല ആരോഗ്യപരമായിട്ട് തേങ്ങാ കൊഴുപ്പ് ഇല്ലാണ്ടാക്കുന്നുണ്ട് അല്ലാണ്ട് അരച്ച് ചില കറികളിൽ തേങ്ങ എല്ലാം അരച്ച് ചേർത്തിട്ട് അപ്പം അത് ഒരു അതിൻറ്റൊരു ടേസ്റ്റ് വ്യതാസമായിരിക്കും തേങ്ങാ അരച്ച് ചേർക്കുന്നത് പിന്നെ ഈ നോൺ വെജാങ്കിലും ചില കറികളിൽ മല്ലിപ്പൊടി ഞണ്ട് ചെമ്മീൻ മുതലായ കറികളിലും മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം തേങ്ങ വറത്തരച്ചിട്ട് കറിയാക്കാറുണ്ട് അങ്ങനെ കറി വെക്കുന്നുണ്ട് നോൺ വെജ് കറികളിൽ ചിലത് തേങ്ങ മുളക് പൊടി മാത്രം അരച്ചിട്ട് കറി വെക്കാറുണ്ട് അതും നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാകുന്നുണ്ട് പിന്നെ നെയ്യ്ച്ചോറ് ചിക്കൻ കറി അതൊക്കെ വെക്കുന്നതാണെങ്കിൽ ചിക്കൻ വറത്തരച്ചിട്ട് വെയ്ക്കാറുണ്ട് അല്ലാണ്ട് ചിക്കൻ ഗ്രേവി പോലെ പൊടികളിട്ടിട്ട് അതുപോലെ വെക്കും കറി ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്തിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മസാല ഒന്നും ചേർക്കാത്ത നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊടിച്ചിട്ട് പച്ചക്കറികളും അതൊക്കെ ആക്കീട്ടാന്ന് നല്ല ടേസ്റ്റിയാകുന്നത് കഴിയുന്നതും അത് ചേർക്കാത്തതാണ് അത് ആരോഗ്യകരമായ ഭക്ഷണം മാത്രമാക്കുന്നത് അതും വീട്ടിൽ തന്നെ എല്ലാം പൊടിച്ചത് പൊടിച്ച് വറത്ത് ആ ഒരു ഇത് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ആക്കുന്നത് പിന്നെ പച്ചക്കറികളിൽ നിന്ന് കുട്ടികൾക്ക് എരുവില്ലാത്തതും പിന്നെ ആ കുട്ടികൾക്ക് വേണ്ടീട്ട് കുറച്ച് എരുവില്ലാത്ത കറികളും ആക്കുന്നു പിന്നെ അതുപോലെ വലിയവർക്ക് അവരവരുടേതായ ഇഷ്ടപ്പെട്ട രീതീലുള്ളതും അത്തരത്തിലാക്കാറുണ്ട് കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞാൽ പച്ചക്കറി ആക്കാൻ വേണ്ടീട്ടാണ് എന്തായാലും പച്ചക്കറിയാകുമ്പോൾ ഈസയായിട്ട് ആക്കുവോം ചെയ്യാം നമ്മൾ ഇതാക്കൻ പിന്നെ നോൺ വെജ് മാംസഭക്ഷണമാകുമ്പോൾ അത് നമുക്ക് എല്ലാം അറിയാണമെന്നില്ല അപ്പം അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ചില ഭക്ഷണം നമ്മൾ ചിലത് നമുക്ക് ഒരു പോലെ അത് ടേസ്റ്റി ആകണമെന്നില്ല പിന്നെ കഴിയുന്നതും ആരോഗ്യകരമായ ചില ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം മാങ്ങ ചക്ക അതെല്ലാം വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു രീതിന്നെന്ന് മാങ്ങായിട്ട് വെക്കും കറി മീൻ കറി ആയാലും മാങ്ങ ചേർത്ത് വെക്കാറുണ്ട് അതെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ചില സ സമയത്ത് കുട്ടികൾക്കു തന്നെ പിന്നെ ഇത് സോയാബീൻ കറി സോയാബീൻ കറിയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ട്ടമുള്ള കറിയാന്ന് അത് ഫ്രൈ ചെറുതാക്കീട്ടും അത് കറി ആയി തേങ്ങ പാലൊഴിച്ചിട്ട് ആ രീതിയിലും വെക്കാറുണ്ട് തേങ്ങ പാലും പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഇട്ടിട്ടും വെക്കാറുണ്ട് ഇതാണ് അനുഭവങ്ങളിലുള്ളത്